പഴയ ഗാനങ്ങളും പുതിയ ഗാനങ്ങളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് പഴയ ഗാനങ്ങൾന്ന് പറഞ്ഞാൽ അത് ഒത്തിരി സാഹിത്യം കലർന്നതാണ് പഴയ ഗാനങ്ങൾന്നു പറഞ്ഞാൽ അവർ സാഹിത്യം എന്ന് പറഞ്ഞാൽ നല്ല ഡീപ്പായിട്ടുള്ള സാഹിത്യം കലർന്നതാണ് പഴയ ഗാനങ്ങൾന്ന് പറഞ്ഞാൽ പക്ഷേ ഇപ്പോഴത്തെ പറഞ്ഞാൽ നമ്മൾ ഒരാളോട് എങ്ങനെ സംസാരിക്കും അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ നമ്മളെങ്ങനെയാണോ സംസാരിക്കാറ് അല്ലെങ്കിൽ നമുക്കെന്താണ് നമ്മൾ ഫീൽ ചെയ്യുന്നത് എ എങ്ങനെയാണോ പറയാറ് നോർമലായിട്ട് ഒരാളുടെ കോൺവെർസേഷൻ പോലെയാണ് ഇപ്പോഴത്തെ പാട്ടുകൾന്ന് പറഞ്ഞാൽ സാഹിത്യം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ പണ്ടത്തെ പോലെ അത്രയും ഡീപ്പായിട്ട് ചിലപ്പോൾ ചിലർക്ക് കേട്ടാൽ മനസ്സിലാകാത്ത രീതീലുള്ള അത്രയും സാഹിത്യോന്നുമില്ല എങ്കിലും സാഹിത്യമുണ്ട് ഇപ്പം ഒൻ മേറ്റഫറ് പോലെ ഒന്നിനോട് ഒന്ന് കംമ്പേർ ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സാഹിത്യങ്ങളുണ്ട് പിന്നെ പഴയ ഗാനങ്ങൾ സാഹിത്യം വച്ചു നോക്കിയാലും നല്ലതാണ് പക്ഷേ ചില നേരത്ത് നമുക്ക് മനസ്സിലാകാതെ വരുമ്പോൾ നമ്മളൊരു പാട്ട് കേൾക്കുമ്പം നമുക്കത് മനസ്സിലായാലാണ് നമുക്കതിനെ ഇഷ്ടപ്പെടാൻ പറ്റുക ഓക്കെ ഇഷ്ടപ്പെടാനൊക്കെ പറ്റുക പക്ഷേ എനിക്ക് പഴയ ഗാനങ്ങളെക്കാൾ ഇഷ്ടം പുതിയ ഗാനങ്ങളാണ് ഭയങ്കര കംഫർട്ട് ഫീൽ ചെയ്യാറുണ്ട് ചിലതിൻ്റെ ആ ഒരു ടൂൺ കേൾക്കുമ്പം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലിറിക്സ് വായിക്കുമ്പം അത്ര പഴയതിൻ്റെ അത്ര സാഹിത്യം നമുക്കിപ്പം എല്ലാർക്കുമൊന്നും സാഹിത്യം മനസ്സിലാകണമെന്നില്ല അപ്പമൊരു നോർമൽ ആണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവും അവരിതാണ് ഉദ്ദേശിക്കുന്നത് അത് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ മനസ്സിൽ വരും അപ്പോൾ നമുക്കതിനെ കൂടുതൽ പുതിയ ഗാനങ്ങളോട് കൂടുതൽ എനിക്ക് പുതിയ ഗാനങ്ങളാണ് കൂടുതൽ ഇഷ്ടം പുതിയ ഗാനങ്ങൾ നമുക്ക് ഇപ്പോം ഒത്തിരി പുതിയ ഗാനങ്ങൾ ഇറങ്ങുന്നുണ്ട് അത് നമുക്കതിൻ്റെ ആ ഒരു ടൂൺ കേൾക്കുമ്പോൾ നമ്മളെ അത് വല്ലാണ്ട് അട്രാക്ട ചെയ്യും നമുക്ക് അതിനോട് കൂടുതൽ ഒരു അഫക്ഷൻ തോന്നും ഒരു ഇഷ്ടം തോന്നും അത് പിന്നെയും പിന്നെയും കേൾക്കാൻ തോന്നും നമ്മളെ അഡിക്റ്റാക്കും ആ രീതിയിലാണ് ഇപ്പോഴത്തെ ആ പാട്ടുകളൊക്കെ പക്ഷേ എന്നാലും പഴയ ഗാനങ്ങളും എനിക്ക് ഇഷ്ടമാണ് അതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇപ്പം കൂടുതലും കേൾക്കുന്നോണ്ടും പുതിയ ഗാനങ്ങളാണ്